അതൊരു പ്രൊഫഷണലാക്കാൻ പറ്റില്ല എന്ന് പലര്ക്കും തോന്നലുണ്ട് കാരണം അതിപ്പോൾ പ്രൊഫഷണലാക്കാന് പറ്റിയില്ലെങ്കില് അത് പഠിക്കണ്ട അല്ലെങ്കിൽ അത് അറിഞ്ഞിരിക്കണ്ട എന്ന് പലതും തോന്നാറുണ്ട് അതേപോലെ നൃത്തം ചെയ്യാൻ എല്ലാവർക്കും പറ്റില്ല അതിനൊരു ബോണ് ടാലന്റഡ് ആയിരിക്കണം എന്ന് എല്ലാവര്ക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് പക്ഷേ എനിക്ക് ബോണ് ടാലന്റഡ് ഞാന് ടാലന്റഡ് ആളൊന്നും ഞാന് പറയുന്നില്ല എൻ്റെ ഡാൻസ് കളിക്കാൻ ഒരു ഇന്ട്രസ്റ്റ് ഉണ്ടായിട്ട് ഞാൻ തന്നെ പല സ്റ്റെപ്പുകളും ടി വിയിൽ കണ്ടു കണ്ടു പഠിക്കും ആദ്യം ചെയ്യുമ്പോഴൊന്നും ഒരിക്കലും എനിക്ക് ഒരു സ്റ്റെപ്പ് നല്ല പോലെ ചെയ്യാനോ അത് അതേപോലെ വരുകയോ ചെയ്തില്ല കാരണം ഞാന് പ്രോഫഷണലായിട്ട് പഠിക്കാത്തത് കൊണ്ട് ഞാൻ പക്ഷേ ടി വിയിൽ കണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ട് പിന്നെയും പിന്നെയും പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണത് പഠിക്കുന്നത് ഇപ്പോഴും ഞാന് നല്ല രീതിയിൽ ഡാൻസ് കളിക്കുന്ന ഒരാളൊന്നുമല്ല എന്നാലും പറ്റുന്ന രീതിയിൽ ഞാൻ കളിക്കാറുണ്ട് എല്ലാവരുടേം ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞത് ബോണ് ടാലന്റഡ് ആണെങ്കില് മാത്രമേ നമുക്ക് നൃത്തം പഠിക്കാന് പറ്റത്തൊള്ളൂ അത് അതൊരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കാൻ പറ്റത്തൊള്ളൂ എന്നാണ് പക്ഷേ എന്റെ ഒരു കൺസെപ്റ്റിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ നല്ല പോലെ കളിക്കാൻ തുടങ്ങും കടി കളിയ്ക്കാന് പറ്റും കാ ഡെയിലി പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മെയ് മളക്കം വഴക്കം വഴക്കവും ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ കിട്ടും സൊ നമുക്ക് നല്ല രീതിയിൽ പെർഫോമ് ചെയ്യാനും ഒക്കെ പറ്റും പക്ഷേ മിക്കവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ജന്മസിദ്ധമായി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാന് പറ്റത്തില്ല അല്ലെങ്കില് ഡാന്സ് കളിക്കാന് പിന്നീട് പറ്റത്തില്ല എന്നാണ് പക്ഷേ എന്നോട് ചോദിച്ചാൽ ഞാന് പറയും അത് പ്രാക്ടീസിലൂടെ മാത്രമേ നടക്കത്തുള്ളൂ പ്രാക്ടീസ് ചെയ്യുന്ന അതിപ്പം എന്താണെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം നമുക്കത് ഇംപ്രൂവ് ചെയ്യാന് സാധിക്കും അതേപോലെ പ്രാക്ടീസ് മുടക്കാതെ ഡെയിലി ചെയ്യാന് നോക്കുക എന്നാണ് പറയാന് ഉള്ളത്